അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ നേരിടുന്ന വലിയ ഒരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ കുട്ടി പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി പഠിച്ചു നിന്നിട്ട് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിലോ ഇവ് നമ്മുടെ സ്ഥാപനങ്ങളിലോ ഒന്നും ജോലി ചെ കിട്ടാതെ കുട്ടികൾ വളരെ അധികം വിഷമിച്ചു നടക്കുന്ന ഒരു കാലഘട്ടമാണിത് തൊഴിലില്ലായ്മ ദാരിദ്ര്യത്തെയും സമ്പത് വ്യവസ്ഥയെയും വളരെഅധികം ബാധിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കാതെ വരുന്നതും ഇവിടുത്തെ തൊഴിലില്ലായ്മ ഒന്നുകൊണ്ടു മാത്രമാണ് വളരെഅധികം വളരെ കൂടുതൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ഒഴിവുകൾ ഉണ്ടെങ്കിൽ തന്നെയും അധികൃതർ അതൊന്നും നികത്താനോ ഉള്ള നടപടികൾ ഒന്നും എടുക്കാറില്ല ആ ഒഴിവുകൾ അങ്ങനെതന്നെ പോകുവാണേ ചെയ്യുന്നത് പിന്നെ പിൻവാതിലുകളൂടെയുള്ള നിയമനങ്ങളും ആശ്രിത നിയമവും ബന്ധു നിയമങ്ങളും ഒക്കെ ആയി

അതിനാല് കുട്ടികൾ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കാതെ വിദേശത്ത് പ തുടര്പഠനത്തിനായിട്ട് വിദേശത്തു പോയിയും അവിടെ ഒരു ജോലി സമ്പാദിച്ച് സ്ഥിരമായി അവിടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ യുവതി യുവാക്കളായ യുവാക്കളെന്നും കേരളത്തിൽ നില്ക്കാത്തതു കൊണ്ട് അതിന്റെ പരിണിത ഫലം വളരെ അനുഭവിക്കുന്നുണ്ട് ഓരോ വീടുകളിൽ എടുത്താൽ വീടുകളിൽ വീടുകളിലേക്കു കടന്നു ചെന്നാൽ പോലും അവിടെ പ്രായമായവർ മാത്രമാണ് ഇന്ന് ഉള്ളത്